ആ എടാ നീ ഫ്രീയാണോ അപ്പോള് ക്ലാസ്സിന്ന് ക്ലാസ്സ് കഴിഞ്ഞായിരുന്നോ ആ എടാ നമ്മള്ക്ക് നീ മാച്ച് കാണാന് ഞങ്ങളുടെ നമ്മളെല്ലാവരും കൂടെ ഒരു മാച്ച് ഒരുമിച്ച് റൂമിലിരുന്നു കണ്ടാലോ എന്ന് ഓർക്കുകയാണ് അവന്മാരെയും കൂട്ടിക്കൊണ്ടുവരാം നിൻ്റെ വീട്ടിലോട്ട് എന്തായാലും ആൻ്റിയോ അവര് ഇല്ലല്ലോ അവര് വന്നിട്ടില്ലല്ലോ ആ അപ്പോള് നമുക്കെല്ലാർക്കും അടിച്ചുപൊളിക്കാം അപ്പോഴെങ്ങനെ ഇന്നു ജയിക്കുമോ

ആ എന്നാ ചെയ്യുക എന്ന് അറിയത്തില്ല ബെറ്റൊക്കെ വച്ചിട്ടുണ്ട് അവന്മാരോട് പന്തു മേടിച്ചു തരാമെന്നു പറഞ്ഞു ആ നമ്മള് കോച്ചിനെ മേടിച്ചൊന്നുമില്ലല്ലോ മ്മ് എന്നാ ചെയ്യുക എന്നാ നമുക്ക് മാത്രം എന്നാ ഇങ്ങനെ ചുമ്മാ പൊട്ടക്കളി കളിക്കുന്ന അവന്മാര് പ്ലേയേഴ്സും ഇല്ല ആ ആ എന്തായാലും നമ്മളെല്ലാരും കൂടെ കാണുമ്പോള് രസമായിരിക്കുമല്ലോ ആ അ പിന്നെ അതു കഴിഞ്ഞ് യു സി എൽ ഉണ്ട് രാത്രി പന്ത്രണ്ടു മണിക്ക് ഇന്ന് റെയലും വാർഫയുമാണ് അതെന്താ അതെന്തായാലും കാണണം പിന്നെ

ആ ഹ എന്നാല് എന്നാല് എന്നാല് അവിടെ കിടന്നാലോ രാത്രി പിന്നെ തിരിച്ചുവരാന് സമയമില്ലല്ലോ ആ ഫുഡൊക്കെ നീ ഫുഡ് വല്ലതും ഉണ്ടോ അവിടെ ആ ആ ആ ഹാ പിന്നെ പിന്നെ മെസ്സിയുടെ എന്തോ റൂമറൊക്കെ കണ്ടായിരുന്നോ നീ മറ്റേ ബ്രൈബ് ഇതു കൊടുത്തതാണെന്ന് റഫറിക്കൊക്കെ റഫറിക്കൊക്കെ പൈസ കൊടുത്ത് അവന്മാര് സെറ്റാക്കിയതാണെന്നൊക്കെ ആ അവന്മാര് ഇപ്പോഴും സമ്മതിക്കുന്നില്ലല്ലോ അതെന്നാ ആ എന്നാലും അതെന്നാ അങ്ങനെെയൊന്നും അടിച്ചാല് ശരിയാവത്തില്ലല്ലോ ഓ കോപ്പ് അതിന് എന്നാ ചെയ്യാനാ ഇങ്ങനൊക്കെ ഓ നല്ല റിച്ചായിട്ട് റിച്ചാക്കിയാണ് അത് എടുത്തത് ആ എന്നാ ചെയ്യാനാണ് കോപ്പ് ആ ഫൈനൽ ആ അതു രസമായിരുന്നു യ്യോ എംബാപ്പെ കത്തുകയായിരുന്നു ആ അതെ ഉം മ്മ് ആ ആ ആ എന്നാ ചെയ്യാനാ ക്രിസ്ത്യാനോയ്ക്ക് ഒരെണ്ണം കിട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ പോർച്ചുഗൽ സ്ക്വാഡ് കുറേ പ്രശ്നമൊക്കെയല്ലേ പിന്നെ അവന്മാര് തമ്മില് പ്രശ്നമാണ് എല്ലായിടത്തും പ്രശ്നം നമ്മൾ നമ്മള് സപ്പോട്ടെയ്യുന്ന ടീമിന് എല്ലാം ഇങ്ങനെയാണ് മ്മ് അപ്പോള് ഒരാളേലും കപ്പടിച്ചുകണ്ടാല് മതിയായിരുന്നു കേരളമൊക്കെ ആണെങ്കില് ഇത്രയും വർഷമായിട്ടും ആ കോച്ചിനെ മേടിക്കുമോ അവന്മാര് അതാണിപ്പോള് പ്രശ്നം അവന്മാര് പ്ലെയേഴ്സിനെ മേടിക്കുന്നതു പോകട്ടെ കോച്ചുപോലും വന്നില്ല കോച്ച് വന്നിട്ടു വേണ്ടേ പ്ലെയേഴ്സിനെ നോക്കാൻ ആ ഉള്ളതിനെ കളയുന്നു രാഹുലിനെയൊക്കെ കളഞ്ഞതു കണ്ടില്ലേ കളയുന്ന എല്ലാം ഇവന്മാരെന്നാ മേടിക്കാത്തത് ഒരുത്തനെയും പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഞാന് പറയുന്നത് ഐ എസ് എല്ലില്ത്തന്നെ നല്ലപോലെ കളിക്കുന്ന കോച്ചിനെ നല്ലപോലെ കളിപ്പിക്കുന്ന കോച്ചിനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ പിന്നെ എന്തേലുവൊക്കെ ഔട്ട്പുട്ട് ഉണ്ടായാൽ ഇതിപ്പോള് നമ്മള് ചുമ്മാ ഓ അതു വന്നിട്ടും കാര്യം ഓ നമുക്കു വന്നിട്ടും നമുക്കു ഭാഗ്യമില്ല അതാണ് ഒന്നാമത്തെ കാര്യം മൂന്ന് ഫൈനൽ പോയിട്ടും പൊട്ടിയില്ലേ ആ ഞാനെന്നാല് അവന്മാരെ വിളിക്കട്ടെ അവന്മാരെ വിളിച്ചുകൊണ്ടുവരാം നീ റെഡിയായിരിക്ക് ഫുഡൊക്കെ റെഡിയാക്കെ ആ ആ ഓക്കെ ഡാ ഓക്കെ ബൈ